ഞാൻ രാവിലെ വിളിച്ച് ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ ഞാൻ അത് റദ്ദാക്കി എനിക്ക് ആണെങ്കിൽ ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം ആണെങ്കിൽ ഇപ്പം ആണെങ്കിൽ ഭയങ്കര ഇവിടെ ഭയങ്കര മഴക്കാറും ഒക്കെ ഞാൻ ആണെങ്കിൽ പോകേണ്ട സ്ഥലത്ത് വിളിച്ച് ചോദിച്ചപ്പഴ്ത്തേയ്ക്കും അവിടെയും ഭയങ്കര മഴയൊക്കെ ആയിട്ട് മൂടി കിടക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് പോകേണ്ട വേറൊരു ദിവസം പോകാം എന്ന് വിചാരിച്ചു അപ്പം ഞാൻ അത് റദ്ദാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കത് പണം ആണെങ്കിൽ റീഫണ്ട് ചെയ്യണമായിരുന്നു അപ്പോൾ ഞാനത് ഗൂഗിൾ പേ വഴിയാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫറ് ചെയ്തത് ഒര് മുന്നൂറ്റി എഴുപത്തെട്ട് രൂപയാണ് നമ്മൾ അടക്കണം എന്ന് പറഞ്ഞ് വന്നിരുന്നത് ഞാൻ ക്യാബ് ബുക്ക് ചെയ്തപ്പോൾ അപ്പം ഞാൻ അത് മുന്നൂറ്റി എഴുപത്തെട്ട് രാവിലെ തന്നെ ഞാൻ ക്യാഷ് ആയിട്ട് ഞാൻ ഗൂഗിൾ പേ വഴി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇനിയിപ്പം എനിക്ക് പോകാൻ പറ്റത്തില്ലല്ലോ ഇവിടടെയും ഭയങ്കര മഴക്കാർ ഒക്കയാ അപ്പം ഇറങ്ങിയിട്ട് കാര്യം ഇല്ല ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പഴ്ത്തേക്കും അവിടെയും മഴയൊക്കെ ആണെങ്കിൽ എനിക്ക് ആവശ്യം നടക്കത്തില്ല അവിടുത്തെ ഒരു പള്ളിയിലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാരുന്നു പക്ഷേ അവിടെ ഇങ്ങനെയൊക്കെ മഴയാണങ്കിൽ നമുക്ക് കാലാവസ്ഥ മോശമായത് കൊണ്ട് പോകാൻ ബുദ്ധിമുട്ടാ അത് കൊണ്ട് എനിക്ക് ഈ ഈ നമ്പറിൽ തന്നെ എനിക്ക് ഇത് ഈ നമ്പറിൽ തന്നെ എനിക്ക് ഗൂഗിൾ പേ ഗൂഗിൾ പേ ഉണ്ട് അപ്പം ഈ നമ്പറിൽ തന്നെ എനിക്ക് ഒന്ന് റീഫണ്ട് ചെയ്ത് തരുമായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ പിന്നെ ആണെങ്കിൽ ഇത് നമുക്ക് പിന്നെയും ഈ ഏജൻസി തന്നെ ബുക്ക് ചെയ്യാമല്ലോ ക്യാബ് ഒന്നോ രണ്ട് ദിവസത്തിനകം വീണ്ടും ഞാൻ ബുക്ക് ചെയ്യുന്നുണ്ട് അപ്പഴ്ത്തേക്ക് ഇത്രയും പൈസ തന്നെ ആവുകയുള്ളോ അതോ റേയ്റ്റ് വല്ലതും കൂടുവോ ഇന്ന് ഇച്ചിരി ഓഫാർ ആണെന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷെ അടുത്ത ദിവസം ബുക്ക് ചെയ്യുമ്പഴ്ത്തേക്കും പൈസ വല്ലതും കൂടുമോ ഇന്ന് ഞാൻ അടച്ച് അഡ്വാൻസ് ആയിട്ട് ഇരുന്നൂറ്റി അമ്പത് രൂപയാ അടച്ചത് ടോട്ടല് കാണിച്ചിരുന്ന എമൗണ്ട് എഴുന്നൂറ്റി മുപ്പത്തെട്ടോ അങ്ങനെ എന്തോ ആയിരുന്നു പക്ഷേ ഞാൻ ഇരുനൂറ്റമ്പത് രൂപ ടോട്ടലി ആയി ഇപ്പോൾ അഡ്വാൻസ് ആയിട്ട് അടച്ചിട്ടുണ്ട് അപ്പം അത് എനിക്ക് ഒന്ന് റീഫണ്ട് ചെയ്യണമായിരുന്നു അപ്പം ഇന്ന് വൈകുന്നേരത്തിനകം റീഫണ്ട് കയറുമായിരിക്കുമല്ലോ അല്ലെ എന്തെങ്കിലും ട്രാൻസ്ഫറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി അല്ലെങ്കിൽ ഞാൻ എൻ്റെ നമ്പറ് വാട്സ്പ്പ് ചെയ്യാം നിങ്ങളുടെ ഈ നമ്പറിനകത്ത് വാട്സ്പ്പ് ഉള്ളതാണോ ആണെങ്കിൽ ഞാൻ ഇത് വാട്സ്പ്പ് ചെയ്തേക്കാം അപ്പോൾ ഞാനിന്ന് വൈകിട്ടത്തേക്കകം പ്രതീക്ഷിക്കാമല്ലോ അല്ലേ പൈസ റീഫണ്ട് ചെയ്യുന്നത് വൈകിട്ടത്തേക്ക് ഞാൻ പ്രതീക്ഷിക്കാമല്ലോ ആ അപ്പം ഇരുന്നൂറ്റമ്പത് രൂപയാ കേട്ടോ ഞാൻ രാവിലെയാ ചെയ്തത് ഇച്ചിരി മുന്നെയാ ഞാൻ റദ്ദാക്കിയത് അത് നിങ്ങൾക്ക് വന്ന് കാണുമോ എന്നറിയത്തില്ല ഞാൻ എന്തായാലും റദ്ദാക്കിയിട്ടുണ്ട്